ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ കണ്ട്രീസിൽ പോവാനാണ് എനിക്ക് ഇഷ്ടം അതിൽ പ്രധാനമായിട്ടും ക്യാനഡയി പോകാൻ എനിക്ക് താൽപ്പര്യമുണ്ട് ഒന്ന് എൻ്റെ ജോലിയുടേ ഭാഗമായിട്ട് തന്നെയാണ് സോഷ്യൽ വർക്കാറാണ് ഞാൻ ജോലിയുടെ ഭാഗം ആയിട്ടെന്ന് പറയുമ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സാദ്ധ്യതകൾ കൂടുതലുള്ള നാടാണ് അതുപോലെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ജീവിതം ഒന്ന് സെറ്റ് ചെയ്യുക ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നില നിൽപ്പുണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെ ആണ് ഞാനും തീർച്ചയായിട്ടും എൻ്റെ ജോലിയുടെയും എൻ്റെ പ്രഫഷനേയും സംബന്ധിച്ച് ഒരു പക്ഷേ ക്യാനഡയിൽ പോയാൽ എനിക്ക് അതിനുള്ള അതിനുള്ള ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തുടർന്ന് എൻ്റെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിലേക്ക് ഉയർത്താനും എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നു പിന്നെ പറയുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും പുതുമയേറിയ ഒരുപാട് കാര്യങ്ങൾ കാണപ്പെടാൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ക്യാനഡ എന്ന് പറയുന്നത് പുതിയ ഒരു രാജ്യമായിരിക്കും പുതിയ രീതികളായിരിക്കും പുതിയ ജീവിതമായിരിക്കും പുതിയ സംസ്കാരങ്ങളായിരിക്കും ഈ സംസ്കാരങ്ങളോട് ഇഴകി ചേരാനും ആ സംസ്കാരത്തിൽ നിന്ന് കൊണ്ട് തന്നെ ബാക്കിയുള്ളവയെ ബഹുമാനത്തോടെ ആർജ്ജിച്ചെടുക്കുവാനും ആ ആ സംസ്കാരത്തെ ബഹുമാനത്തോടെ സ്വീകരിച്ചെടുക്കാനുമുള്ള ഒരു വലിയ ഒരു തുറവി എൻ്റെ മനസ്സിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളെകുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകും ഇപ്പം ക്യാനഡ ഞാൻ ചോദിച്ചത് കൊണ്ട് പറഞ്ഞെന്ന് മാത്രം അതിനും മറ്റു രാജ്യങ്ങളിൽ പോവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡ് ടൂറ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇഷ്ടപെടുന്ന ഒരു വ്യക്തിയാണ് സഹചര്യങ്ങൾ നമുക്ക് എത്രത്തോളം അനുകൂലം ആകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ആഗ്രഹങ്ങളുണ്ട് നാടിൻ്റെ പല ഭാഗത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി കാണുക അവിടുത്തെ ജീവിത രീതികൾ അവിടുത്തെ ചുറ്റുപാടുകൾ അവിടുത്തെ രീതികൾ ഒക്കെ ആർജ്ജിച്ചെടുക്കുക അതിനെ പറ്റി കൂടുതൽ മനസിലാക്കുക എന്ന കാര്യങ്ങളെ പറ്റി എനിക്ക് ആഗ്രഹമുണ്ട് ഇനി എത്രത്തോളം അതിനുള്ളെ അതിന് വേണ്ടി സാദ്ധ്യതകൾ തുറന്ന് കിട്ടുമെന്ന് അറിയില്ല പക്ഷേ എന്നിൽ നിന്നും ആ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ പുറത്തോട്ട് വിദേശത്തോട്ട് രാജ്യത്തിലേക്ക് പോകും എന്നൊരു സ്വപ്നത്തിലേക്ക് ഞാൻ എന്നെ തന്നെ തയ്യാറാക്കുമെന്നും ഞാൻ ആശിക്കുന്നു